ഞങ്ങളുടെ പ്രദേശ ആശുപത്രികളെ സംബന്ധിച്ചെടുത്തോളം ഭയങ്കര തിരക്ക് തന്നെയാണ് എപ്പഴും പ്രത്യേകിച്ച് ഗവൺമെൻറ്റ് ഹോസ്പ്പിറ്റലാണേലും അവിടെ നമുക്ക് തിരക്കുണ്ട് അടുത്ത് പോലും നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒര് ദിവസം നമ്മ നമ്മളെന്തേലും അത്യാവശത്തിന് പോകുവാണേൽ പോലും ഒരു ക്യാഷുവാലിറ്റി ആണേൽ പോലും ക്യാഷുവാലിറ്റി ആണെങ്കിൽ ഓക്കെ അതിന് നമുക്ക് അതിന് അതിനനുസരിച്ച് സൗകര്യം അവര് നമുക്ക് ചെയ്ത് തരുന്നുണ്ട് നമ്മള് എന്തേലും എമർജൻസി ആയിട്ടാണ് പോകുന്നേങ്കിൽ ക്യാഷുവാലിറ്റീലാണേലും അല്ലേല് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഏതേലും ഐസിയുവോ അങ്ങനെ എവിടേക്കാണേലും നമ്മളെ പെട്ടന്ന് തന്നെ കൊണ്ട് പോകും പക്ഷെ അല്ലാതെ നമ്മളെന്തേലും അസുഖങ്ങളായിട്ട് നമ്മള് ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ച് പോകുവാണെങ്കിൽ പക്ഷെ നമുക്ക് അന്ന് തിരക്ക് കൊണ്ട് ചിലപ്പം കാണാൻ പറ്റത്തില്ല അതുപോലെ തിരക്കുകളാണ് ഇവിടെ പിന്നേന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ പിന്നെയും തിരക്ക് കുറവെന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പ്പിറ്റലിലാണ് കാരണം സർക്കാർ ഹോസ്പ്പിറ്റലില് അതിനൻസരിച്ച് ആനുകൂല്യങ്ങളുള്ളത് അൻസരിച്ച് തിരക്ക് കൂടുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടൊരു ഹോസ്പ്പിറ്റലില് സ്കിൻ ഡോക്ടറെ കാണാൻ പോയപ്പൊത്തന്നെ അവിടെ അത്രയും തിരക്കായിരുന്നു എന്നിട്ട് തിരക്ക് കാരണം നമ്മള് ആൾക്കാര് സമയം അത്ത് അവരുടെ സമയം ഇപ്പ പറയാണെങ്കി ജോലിക്ക് പോകുന്നവരുണ്ട് ക്ലാസ്സിൽ പോകുന്നവരുണ്ട് ഇതെല്ലാരും വേണ്ടാന്ന് വിചാരിച്ച് വരുന്നവരാണ് ആ ഒരു ദിവസം ഒഴിവാക്കി വരുന്നവര് ഇങ്ങനെയൊര് തിരക്ക് കാണുമ്പോൾ അവര് രാവിലെതൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടും ചിലപ്പോൾ കാണാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട് ചിലപ്പോൾ ടോക്കൺ പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട് അപ്പോൾ ഇപ്പം എ നമ്മുടെ നാട്ടിലിപ്പോൾ പല പല അസുഖങ്ങളെല്ലാം വർധിച്ച് വരുവാണ് പ്രത്യേകിച്ച് നിപ്പാ വൈറസാണേലും ഇപ്പം പുതിയതായിട്ട് വീണ്ടും കണ്ടത്ത് വീണ്ടും വന്നു പിന്നേന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ അസുഖങ്ങളായിട്ട് വരുന്നവരുണ്ട് ഇപ്പോൾ വൈറൽ ഫീവറിൻ്റെ ടൈമാണ് വൈറൽ ഫീവറായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പം നമ്മള് ഹോസ്പ്പിലിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കൂട്ടം ആൾക്കാര് പനിക്കു മാത്രമായിട്ട് ഒരു സെക്ഷൻ നിക്കുവാണ് രാവിലെത്തൊട്ട് വൈകുന്നേരം വരെ നിന്നാലാണ് നമുക്ക് ഒരു ഡോക്ടറെ കാണണം കാണാൻ സാധിക്കത്തൊള്ളു ഈവൻ നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് അതായത് നമ്മളിപ്പോൾ അവിടെ ടോക്കൺ എടുത്തിട്ട് ഓൾറെഡി നമ്മള് ബുക്ക് ചെയ്തിട്ടാണ് പോന്നെപ്പോലും നമുക്ക് അത് കാണാൻ പറ്റില്ല അത്രയും തിരക്കാണ് അവിടെ